ഓക്കെ അപ്പം എൻ്റെ വീടിനടുത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ ഞാൻ ഈ വീട് മേടിച്ച സമയം മുതലുള്ള ഒരു ഏകദേശം പതിനാറ് പതിനേഴ് വർഷം അപ്പം അത് അടുത്ത വർഷം പതിനേഴ് വർഷമാവും അപ്പം ആ സമയം തൊട്ടുതന്നെ കാണുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് അപ്പം ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വന്ന സമയം അതായത് തുടക്കം ഒക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരിവിടെ കളിക്കാനുണ്ട് കളിക്കാനുണ്ടായിരുന്നു ഫുട്ബോൾ ഗ്രൗണ്ട് വോളിബോള് ക്രിക്കറ്റ് എല്ലാം ഒരേ ഗ്രൗണ്ടിൽ തന്നെ എല്ലാം അന്ന് നാട്ടുകാർ കളിക്കും നാട്ടുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു യുവതലമുറ ആ ഒരു ഇപ്പം എല്ലാവരും കല്യാണം കഴിച്ച് പോയിക്കാണും ആ ഒരു ആ ജനറേഷൻ അവരെല്ലാം കാണും അപ്പം അവരായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പം ഓക്കെ അപ്പം അവർ ആ സമയം ലൈക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവരാ ഗ്രൗണ്ടിൽ എല്ലാം ഏതായാലും വോളിബോൾ ടൂർണമെൻറ് ഫുട്ബോൾ ടൂർണമെൻറ് അതൊരു ഇവൻ ദോ ഒരു ചെറിയ ഗ്രൗണ്ട് ആണങ്കിലും അവിടെ എല്ലാം നടക്കുമായിരുന്നു

ഇപ്പം ആ വഴി പോയിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വെറുമൊരു എനിക്കൊന്നും തോന്നുന്നില്ല ഇപ്പോഴൊരു പോസ്റ്റോ പോലും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫുട്ബോൾ പോസ്റ്റോ ഒന്നും തന്നെ അവിടെ ഇപ്പം അവൈലബിളല്ല അത് എനിക്ക് ആ ഒരു ട്രാൻസിക്ഷൻ ലൈക്ക് ഞാൻ മേടിച്ച സമയം പിന്നെ ഇപ്പം ഈ ഒരു വർഷം വരെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു കളിക്കാനായിട്ട് അതു പയ്യെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഇപ്പം ഇല്ല ഒരു നാല് കോവിഡ് ടൈം മുതൽ ആ ഗ്രൗണ്ട് അത്ര ആക്റ്റീവ് അല്ല അതിന് മുമ്പ് തന്നെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു അറിയില്ല ചിലപ്പം സൗകര്യങ്ങളുടെ കുറവായിരിക്കും ഗവൺമെൻ്റ് ആണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൻ്റെൽ അത്രയും ഇൻസെൻറ്റീവ് ഒന്നും ഇല്ല ഇതിനായിട്ട് ഇൻവസ്റ്റ് ചെയ്ത് കായിക താരങ്ങളെ വളർത്താനായിട്ട് അത് തന്നെ ആയിരിക്കും ചിലപ്പം നമ്മളെ എന്താ പറയുന്നത് ഇപ്പം വേറെ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ രാജ്യത്തെ റെപ്രസെൻറ് ചെയ്യുന്ന കുറേ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഇല്ല ഈ ആരും ഇല്ല എന്നല്ല പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഭയങ്കര കുറവാണ് കംപയറ് ഇന്ത്യ പോലെ ഓക്കെ നമുക്ക് സ്പെയിൻ എന്ന് പറഞ്ഞ കൺട്രി എടുക്കാം സ്പെയിനും ഇന്ത്യ ആയിട്ട് കംപയർ ചെയ്യുമ്പം കംപയർ ചെയ്യുമ്പം സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യം തീരെ ചെറിയതാണ് യൂറോപ്പിലൊരു ചെറിയ രാജ്യമാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ അത്രയും കാണുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ ഇന്ത്യയിലും സ്പെയിനിലുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റിസ് തമ്മിൽ ഒന്ന് കംപയർ ചെയ്താൽ സ്പെയിനിനായിരിക്കും ഒരു പക്ഷെ കൂടുതൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവരുടെ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് എന്താ പറയുന്നത് സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ ലൈക്ക് കൂട്ടാൻ അവർ ഇൻവസ്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്പെയിനിൻ്റെ നൂറിരട്ടി വലിപ്പം ഉള്ള രാജ്യമാണ് പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പം അങ്ങനൊരു ഡെവലപ്മെൻറ് ഇല്ലാത്തോണ്ടാണ് ഈ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് നമ്മുടെ രാജ്യത്ത് അടുത്ത് അപ്പുറത്തെ രാജ്യങ്ങളുമൊക്കെയായിട്ട് നോക്കുമ്പം അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ പൊതുവേ ഭയങ്കര കുറവാണ് ഈ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ലൈക്ക് ഓക്കെ ഇപ്പോൾ ഫുട്ബോൾ എടുക്കാം ഒട്ടുമിക്കയിടത്തും ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് പക്ഷേ ഒരു ഫുട്ബോൾ ലൈക്ക് മലയാളികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഫുട്ബോൾ പ്ലേയേർസ് എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന അത്രയും ആൾക്കാരേ ഉള്ളൂ ഭയങ്കര കുറവാണ് അപ്പം നമ്മുടെ ഇതിൽ ഇൻവെസ്മെൻറ് കുറവാണ് ഇപ്പോൾ ഓക്കെ ഗവൺമെൻറിൻ്റെ ഒരു പുതിയ ഇനി ഈ ഗവൺമെൻറിൻ്റെ ഈ ഗവൺമെൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം ലേറ്റസ്റ്റ് വന്ന ന്യൂസാണ് അർജൻന്റീന ടീം കേരളത്തിൽ ഫുട്ബോള് കളിക്കാൻ വരുന്നു മാച്ച് കളിക്കാൻ വരുന്നു ഓക്കെ സോ അതിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് പക്ഷെ അതിൻ്റെ പകുതി എമൗണ്ട് മതി നമ്മുടെ നാട്ടിലെ ഈ ചില ഗ്രൗണ്ടുകളിൽ പുല്ല് പിടിപ്പിക്കാനാണെങ്കിലും ലൈറ്റ് പിടിപ്പിക്കാനാണെങ്കിലും അത്യാവശ്യം ലൈക്ക് ഡെവലപ്മെൻറ് വരുത്താനാണെങ്കിൽ അതിൻ്റെ പകുതി എമൗണ്ട് മതി പക്ഷെ അങ്ങനെയൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കായിക പ്രേമികൾക്ക് ഫുട്ബോളോ ഓ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സ്പോർട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് ഓക്കെ ഇപ്പം അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് എന്നുള്ളത് ആരെങ്കിലും മേടിച്ച് ടർഫ് പോലെ ഒരു വലിയ സെറ്റപ്പ് ആക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെയും ആൾക്കാർ വരും ആൾക്കാർ അത്യാവശ്യം കളിക്കാൻ വരും പക്ഷേ എന്ന് പറഞ്ഞാലും ലൈക്ക് ടർഫിലൊരു സ്റ്റേഡിയം പോലൊരു സീറ്റിങ്സ് സീറ്റിങ് സിസ്റ്റോ ഒന്നും ഇല്ല സോ അതും ആ ഒരു ഓപ്പർട്യൂണിറ്റി ഭയങ്കര കുറവാണ്

ഈ ഇപ്പോഴത്തെ നമ്മളെ നാട്ടുകളിൽ എനിക്ക് ടർഫിനേക്കാളും കൂടുതൽ ഈ സാധാരണ ഗ്രൗണ്ടുകളാണ് പക്ഷെ അത് ഡെവലപ്പ് ആകാത്തതുകൊണ്ട് കായികപ്രേമികൾക്ക് ലൈക്ക് അത്ര സഹായകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല